ഏറെ ചിരിപ്പിച്ച ഒരു സമാഹാരം എന്ന് പറയുന്നത് പെട്ടന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ൻ്റ ഉപ്പാപ്പാക്കൊരു ആനണ്ടാർന്നു എന്ന് പറയുന്ന

പുസ്തകമാണ് അതിൽ ഹാസ്യപരമായി ഒരുപാടൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില ഭാഷാ പ്രയോഗങ്ങളും അദ്ദേഹം ചിലരോട് ചോദിക്കുന്നതും മറുപടി പറയുന്നതുമായ ഓരോ സന്ദർഭങ്ങളുമൊക്കെ എനിക്ക് ഞാനധികം ഒര് ഒര്പാട് ആസ്വദിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി സംസാരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഹാസ്യം കലർന്ന മറുപടി ഇവയെല്ലാം എന്നെയേറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചില ഹാസ്യങ്ങൾ ചിരിപ്പിക്കുക മാത്രമല്ല നമ്മളെന്തുകൊണ്ടങ്ങനെ മുമ്പ് ചിന്തിച്ചില്ല എന്ന് കൂടി ഓർക്കേണ്ടുന്ന ചില ഹാസ്യങ്ങളുണ്ടായിട്ടുണ്ട് ഹാസ്യപരമായി ഒരുപാട് പുസ്തകങ്ങളും നോവലുകളും വായിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിവരുന്നത് ഈ ഒരു പുസ്തകമാണ് എനിക്കേറെ വിഷമങ്ങളും വ്യാകുലതകളും നിറഞ്ഞ ഉറൂബിനെപ്പോലുള്ള കഥാപാത്രങ്ങളോടും അതേപോലെ ആട് ജീവിതത്തില് നജീബിനെപ്പോലുള്ള കഥാപാത്രങ്ങളുടെയും ജീവിതങ്ങൾ വായിക്കാനും അത് വായിച്ചറിയുവാനും ആണ് എനിക്ക് കൂടുതലും ഇഷ്ടവും താല്പര്യവും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഈ ഒരു കൃതി ഞാനേറെ ഉത്സാഹത്തോടെ വായിച്ചു തീർത്തു എന്നുള്ളതാണ് ഒന്ന് നമ്മള് വായിച്ചു തുടങ്ങിയാൽ നമുക്കത് സമയം പോവുന്നത് അറിയാതെ നമ്മളത് വായിച്ചു തീർക്കും എന്നുള്ളതാണ് ആ ഒരു കൃതിയുടെ വിശേഷണം